ഞാനൊരു ചുരിദാർ ഓൺലൈനിൽനിന്ന് വാങ്ങിയതായിരുന്നു അത് ഇവിടെയെത്തി പോയിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് തീരെ മോശപ്പെട്ടൊരു ഡ്രസ്സാണ് നമ്മൾ വിചാരിച്ച സാധനമല്ല നമ്മൾക്ക് കിട്ടിയത് അത് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനമാണ് കിട്ടിയത് ഇപ്പോൾ അത് എത്രയും പെട്ടെന്ന് അത് അതിന്റെ പൈസ റീഫണ്ട് ചെയ്തു തരണം എന്നു വച്ചാൽ ഇനിയും കാത്തിരിക്കാൻ പറ്റില്ല എന്നു വച്ചാൽ നമുക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പൈസേന്റെ പുറകേ പിന്നെ അതും പറഞ്ഞ് നടക്കാൻ പറ്റില്ല ഇനിയെന്തായാലും നമ്മൾ ആ ഓർഡറ് ചെയ്യുന്ന സാധനം നമ്മൾക്ക് കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്